ഹലോ ഡോക്ടർ അല്ലേ ആ എനിക്ക് വല്ലാണ്ട് രണ്ട് ദിവസമായിട്ട് പനി ഉണ്ടായിരുന്നു ആ പിന്നെ ഇടയ്ക്ക് വയറുവേദനയും മറ്റേ ഇടയ്ക്ക് വോമിറ്റിംഗ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു

ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി

ഇല്ല ഒന്നും കാണിച്ചിട്ടൊന്നും ഇല്ല ആ ഇൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു വരണോ ആ ഇല്ല ഞങ്ങൾ ഇടയ്ക്ക് ചുക്ക് കാപ്പി കുടിക്കുവായിരുന്നു പിന്നെ ആ ഒരു ഒരു വട്ടം എങ്ങാണ്ട് പാരസെറ്റമോൾ കഴിച്ചു അപ്പം ലേശം കുറവുണ്ടായിരുന്നു ആ അഞ്ഞൂറിൻ്റെ ആയിരുന്നു കഴിച്ചത് ഒറ്റ തവണയേ കഴിച്ചിട്ടുള്ളൂ ആ കുറവ് ഉണ്ടായിരുന്നു ആ അത് കുറഞ്ഞു എന്നുള്ള രീതിയിൽ വിട്ടു പിന്നെ വീണ്ടും കൂടി കൂടി കഴിഞ്ഞപ്പം ഇനി ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ആ അതെ ആ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിരുന്നു നൂറ് ഡിഗ്രിക്ക് മുകളിൽ ഉണ്ടായി അതാണ് ഡോക്ടറെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചത് അല്ല നല്ല രീതിയിൽ ഉണ്ട് നല്ല രീതിയിൽ വയറുവേദന ഉണ്ട് അത് ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കഴിച്ചത് ഒരു ഒരു ദിവസം കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്ന് കഴിക്കുവാണ് ചെയ്തത് പെരുന്നാൾ ഒക്കെ അല്ലായിരുന്നോ ആണോ ആ പെരുന്നാൾ ഒക്കെ അല്ലായിരുന്നോ അപ്പം അങ്ങനെ വി കടയിൽ നിന്ന് വാങ്ങി അപ്പം അവിടുന്ന് കഴിക്കുവാണ് ചെയ്തത്

ആ ഓക്കെ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ ആ ഇല്ല ജലദോഷം ചുമയൊന്നും ഇല്ല ഇല്ല അത് മാത്രമേ ഉള്ളൂ ആ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു

ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ എന്നാൽ നാളെ ഞാൻ വരാം എന്നാൽ നേരിട്ട് ആ ഓക്കെ ഓക്കെ ഓക്കെ ഡോക്ടർ ആ ഓക്കെ ഓ